ഗൂഗിൾ ഉപയോഗിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല ഒരു ഒരു ഒന്നും ഞാൻ ഗൂഗിൾ വഴി ഒന്നും പറയുകയും എടുക്കുകയും ചെയ്തില്ല ആളുകൾ ഓരോ ആളുകളും ഗൂഗിൾ വഴിയാണ് ഓരോ കാര്യങ്ങളും പറയുകയും പൈസയുടെ കാര്യങ്ങളായാലും എല്ലാം ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യുന്നതുമില്ല അത്രയും അത്രയുമൊന്നും ഗൂഗിൾ വഴി എനിക്കറിയത്തില്ല പിന്നെ ഇത് ഫോൺ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഒന്നെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഫോൺ സംസാരിക്കും പിന്നെ അത്രയേ ഉള്ളൂ ഒരു വണ്ടി വിളിക്കാനോ അല്ലെങ്കിൽ ആശുപത്രി പോകാനോ എല്ലാം വിളിക്കും അല്ല ഗൂഗിൾ വഴി ഞാൻ പൈസ എടുക്കുകയോ അങ്ങനുള്ള കാര്യങ്ങളൊന്നും ഇല്ല